ഇപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്ത് കണ്ടുവരുന്ന ഹോസ്പിറ്റൽസാണ് ഗവൺമെൻ്റ് ഹോസ്പിറ്റൽസും പിന്നെ പ്രൈവറ്റ് ആയിട്ട് വരുന്ന ഹോസ്പിറ്റൽസും അതു വച്ച് നോക്കുമ്പോൾ ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ എന്നു പറയുമ്പോൾ വളരെ അധികം ഡോക്ടേർസിൻ്റെ ഒക്കെ ലഭ്യതക്കുറവൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇതാണ് ഒന്ന് ഒരു ഹോസ്പിറ്റൽ എന്നു പറയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഡോക്ടേർസ് ഒക്കെ ഉണ്ടാവുള്ളു ആ ഒരു ടൈം എന്നു പറയുമ്പോൾ നമുക്ക് ഒരുപാട് രോഗികൾ ഉണ്ടാവുന്ന ഒരു ഇതാണ് ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ എന്നു പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഇതാണ് ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകൾ മെഡിസിൻസ് ആണെങ്കിലും വേണ്ട വിധത്തിൽ ലഭ്യതക്കുറവുണ്ട് നമുക്ക് അവിടെ നിന്ന് ഡോക്ടർസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ആണെങ്കിൽ പോലും നമുക്കെന്നു പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭ്യമല്ലാത്തതാണ് മെഡിസിൻസ് നമ്മൾ പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കണം അതിനു നമ്മൾ ഓവർ ഫീ വേറെ കൊടുക്കേണ്ടി വരും അങ്ങനെ ആണ് ആശുപത്രികളിലെ ഒരു ഇതെന്നു പറയുമ്പോൾ ഇപ്പോൾ വേണ്ട വിധത്തിൽ നമുക്ക് പെട്ടന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽപ്പോലും ഗവൺമെൻ്റ് ഹോസ്പിറ്റലിലെ ചില ഹോസ്പിറ്റലുകളിൽ വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ അല്ലാണ്ട് അവിടെ നിന്ന് നമുക്ക് എന്താണോ വേണ്ടത്ത് അത് ഒന്നും ചെയ്തു തരികയോ കാര്യങ്ങൾ ഒന്നും ഇല്ല